ഹലോ നമ്മളെ വീട്ടിലേ ഒരു വിശേഷ ദിവസമായിട്ട് ഉണ്ട് പ്രമാണിച്ചൊരു ചടങ്ങുണ്ട് അപ്പം അതിന് നിങ്ങളുടെയൊക്കെ അഞ്ചലിൽ ആലയം ഹോട്ടൽ അല്ലെ ആലയം റസ്റ്റോറൻ്റിൽ നിന്നും എനിക്ക് കുറച്ച് സാനങ്ങൾ വേണമായിരുന്നു ഒരു ആ അൻപത് പേർക്ക് കൊടുക്കത്തക്ക ഒരു സാധനമാണ് ഞാനാഗ്രഹിക്കുന്നത് അപ്പം എനിക്ക് ഫ്രൈ റൈസ് ഫ്രൈ റൈസും അതിൻ്റേതായ ചിക്കനും അതിനോട് അനുബന്ധിച്ച സാനങ്ങളും എനിക്ക് വേണം അപ്പോഴെങ്ങനെയാണ് നിങ്ങളുടെ റേറ്റ് ഒരു പ്ലേറ്റിന് അല്ലെങ്കിൽ അതിന്റെ എങ്ങനെയാണ് ഒമ്പത് പേർക്കോ അല്ലെങ്കിൽ പ്ലേറ്റ് കണക്കാക്കിയോ ഉള്ള റേറ്റ് എന്നെ ഒന്ന് അറിയിക്കണം അതുപോലെ തന്നെ അതെനിക്ക് വേണ്ടത് ആ ഇരുപത്തിയെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പകൽ പന്ത്രണ്ടര മണിക്കാണ് അതു നിങ്ങൾ ഇവിടെ എത്തിക്കണം എത്തിക്കേണ്ട മേൽവിലാസം കുര്യൻ മാത്യു മേലിയൂക്കുന്നിൽ വീട് റീത്തു പള്ളിയിൽ കുന്നുമ്പുറം അവിടെയാണ് എത്തിക്കേണ്ടത് എന്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് പൂജ്യം ഒമ്പത് പൂജ്യം ഒമ്പത് എന്ന നമ്പറിൽ വിളിയ്ക്കയാണെങ്കിൽ നിങ്ങൾക്കെന്റെ വീട് കണ്ടെത്തുവാൻ സാധിക്കും അപ്പോഴത് നിങ്ങൾ എന്നെ റേറ്റ് അറിയിക്കുക എന്ന് എന്നും നിങ്ങൾ ആ എന്താണെന്ന് എന്നെ അറിയിക്കണം അപ്പോൾ അതനുസരിച്ചിട്ട് വേണം എനിക്ക് ബുക്ക് ചെയ്യാൻ നിങ്ങളെന്നെ അറിയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു